ഈ പ്രദേശത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കിട്ടുന്ന മീനുകൾ വരാൽ കാരി ചെമ്പല്ലി അഥവാ കല്ലടമുട്ടി പരൽ പിന്നെ പള്ളത്തിയെന്ന് പറയുന്ന ചെറിയ മീൻ തൂളി പിന്നെ ഈ മുള്ളങ്കണ്ണിയെന്നൊക്കെ പറയുന്ന ഒരു കണമ്പ് പോലെയുള്ള മൽസ്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത് പിന്നേ ഇപ്പം വളർത്തു മീൻ ഈ ഫാക്ച്ചറികളിൽ നിന്നും പാടത്തു കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഇപ്പം വളർത്തു മീനും ഈ പാടശേഖരത്തിലും നമ്മുടെ പുഴ പുഴകളിലുമൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് അവിടെ ഈ വളർത്തു മീനും കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ രോഹു എന്ന് പറയുന്ന മീൻ കട്ടള പിന്നേ ഗ്രാസ് ക്രാപ്പ് എന്നു പറയുന്ന മീൻ ഉണ്ട് പിന്നേ കരിമീൻ ഫിലോപ്പിയ എന്നൊക്കെ പറയുന്ന മീൻ ധാരാളമായിട്ടുണ്ട് കൂടാതെ കൊഞ്ച് കൊഞ്ച് ചില സീസണിൽ കൊഞ്ചും നല്ലതുപോലെ കിട്ടാറുണ്ട് ഇപ്പോൾ സാധാരണ ഇവിടെ വരാൽ കാരിയൊക്കെ ഏകദേശം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്കൊക്കെ വിൽക്കാൻ സാധിക്കുന്നുണ്ട് മറ്റേ കരിമീനൊക്കെ അവൈലബിലിറ്റി കുറവാണ് എങ്കിലും അതിന് നാനൂറ് രൂപ ഒരു കിലോയ്ക്ക് കരിമീന് ഉണ്ട് പിന്നെ രോഹു പിന്നെ ഈ കൂരിവാള എന്നൊക്കെ പറയുന്ന അത് ഒരു സൈസ് വളർത്തു മീനാണ് അതിനെ ഒക്കെ കിലോ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ വിലയ്ക്ക് വിൽക്കാം പിന്നെ ഇതിനൊക്കെയുള്ള വല വീശി പിടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഒടക്ക് വലയിൽ ഇത് അധികം കിട്ടാറില്ല വീശിയാൽ ഈ മീൻ കിട്ടും പിന്നേ പാടശേഖരണ ഹാക്ച്ചറികളിൽ നിന്നും മീൻ കൊണ്ടു വിടുന്നുണ്ട് അത് ചില പാടത്തൊക്കെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ പാതി ഒരു ലക്ഷത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടു വിടും ഈ മീനുകൾ ഏകദേശം ഒരു മാസം രണ്ട് മാസം കൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമാകും അരക്കിലോ ഒരു കിലോയുടെ മോളിൽ തൂക്കം വരുന്ന മീനുകൾ ആകട്ടെ ഇത് ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് വലുതാകും അത് സാധാരണ ഈ മീൻ ഈ പിടിക്കാൻ പോകുന്ന ആൾകാർക്ക് വളരെ ഉപകാരപ്രദമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു വന്നു ഈ പാടശേര ശേഖരങ്ങളിലും പുഴകളിലുമൊക്കെ നിക്ഷേപിക്കുന്നത് ഈ മീനും രുചികരമാണ് ഇതൊക്കെ ഈ നമ്മൾ ഈ എന്നാ മത്സ്യത്തീറ്റകൾ കൊടുത്ത് വളർത്താത്ത മീൻ ആയതുകൊണ്ട് അതായത് നാച്ചുറൽ മറ്റുള്ള വെള്ളത്തിലുള്ള പുല്ലും പായലും പോളയും വെള്ളത്തിലെ വേസ്റ്റ് ഒക്കെ തിന്നു ജീവിക്കുന്ന മീൻ ആയതുകൊണ്ടും ആർട്ടിഫിഷ്യലായിട്ടുള്ള തീറ്റകൾ കൊടുക്കാത്തത് കൊണ്ടും ഇതിന് മറ്റ് കുളങ്ങളിലോ ഒക്കെ വളർത്തുന്ന മീനിനെക്കാളു അൽപ്പം കൂടെ രുചികരമാണ് ഈ പുഴയിലും പാടത്തു നിന്ന് നെൽപ്പാടം കൃഷി നെൽപ്പാടങ്ങളിലൊക്കെ വിട്ടു വളർത്തുന്ന ഈ മീനുകൾ ഇതിന് ആവിശ്യക്കാരുണ്ട് ധാരാളമായിട്ട് കാരി ഉണ്ട് പിന്നെ വേറെ ഒരു ടൈപ്പ് മീൻ ഈ വാഹ എന്ന് പറയുന്ന ഒരു മീനുണ്ട് ഈ വരാൽ പോലെ ഇരിക്കുന്ന മീൻ എന്നാൽ വരാലിൻ്റെ അത്രയും ടേസ്റ്റുള്ള മീനല്ല പിന്നെ അതുപോലെ തന്നെ വരാൽ പോലെ ഇരിക്കുന്നത് തന്നെ ഉള്ളൊരു മീനാണ് ചേറ് മീൻ എന്ന് പറയും അത് കുറച്ചു കൂടെ വലിപ്പം വയ്ക്കുന്ന മീനാണ് അതിനൊക്കെ അത്യാവശ്യം നല്ല വില കിട്ടാം പല അസുഖങ്ങൾകൊക്കെ നല്ലതാണ് ഈ വരാലിൻ്റെ മാംസം എന്നാണ് പറയുന്നത് മുറിവ് പറ്റിയാൽ ഒക്കെ മുറിവ് ഒടിവ് അങ്ങനെ ഒക്കെയുള്ള അസുഖങ്ങൾ സംഭവിച്ചാൽ ഈ വരാലിൻ്റെ മാംസം കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പുഴവെള്ളത്തിലെ മീൻ എപ്പോഴും ടേസ്റ്റ് തന്നെയാണ് നല്ല വെള്ളത്തിൽ കിടക്കുന്ന ആർട്ടിഫിഷ്യൽ തീറ്റയൊന്നും ഇല്ലാത്ത മീനുകൾക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ആണ് പച്ച മീൻ പിടിക്കുന്ന പാടേ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് കിട്ടും മറ്റേത് കടലിൽ നിന്നൊക്കെ പിടിക്കുന്ന മീനാണെങ്കിൽ അതൊക്കെ ഐസിട്ടും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ ചേർത്തു എത്രയോ നാളുകൾ കഴിഞ്ഞായിരിക്കും ഇത് മാർക്കറ്റിൽ എത്തുക പക്ഷെ പുഴമീനോ പാടത്തു നിന്ന് പിടിക്കുന്ന മീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ച് മണിക്കൂറുകൾക്ക് ഉള്ളിൽ മാർക്കറ്റിൽ വരുന്നു അപ്പോൾ തന്നെ അത് വിറ്റുപോകുന്നു ഇവിടെ ഈ നാട്ടിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ അടുത്ത കാലത്തായി വളർത്തു മീൻ ഇങ്ങനെ കാച്ചകളിൽ നിന്ന് കൊണ്ട് വിടുന്നതു കൊണ്ട് ഇഷ്ടം പോലെ വളർത്തുമീൻ കിട്ടുന്നു പിന്നെ ഫിലോപ്പിയ ഒര് ടൈപ്പ് ഓഫ് വളത്ത് മീനാണെങ്കിലും അത് ഇഷ്ടംപോലെ ഈ കുട്ടനാടൻ പാടശേഖരങ്ങളിലുമുണ്ട് കാരി നല്ല വളരെ കനം കുറഞ്ഞ ടേസ്റ്റുള്ള ഒരു മീനാണ് കാരിയും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്